പാട്ട് കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാട്ട് പാടാനും ഒരുപാട് ഇഷ്ടമാണ് ഏതൊക്കെ തരം പാട്ടുകളാണ് കേൾക്കാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് മ്യൂസിക് പിന്നെ എന്താണ് പറയേണ്ടത് മലയാളം പാട്ടുകൾ ഏറ്റവും കൂടുതൽ കേൾക്കാറ് പ്രത്യേകിച്ച് ചിത്ര ചേച്ചിയുടെയും ദാസ് സാറിൻ്റെയും പാട്ടുകൾ ഏറ്റവും കൂടുതൽ കേൾക്കൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ് അവരുടെ പാട്ടുകൾ സിനിമ ഗാനങ്ങളാണ് കൂടുതൽ കേൾക്കാറ് അതുകൊണ്ട് തന്നെ ദേശത്തെ നാടൻ പാട്ടുകളെ കുറിച്ചൊന്നും എനിക്ക് അത്ര പരിചയം ഇല്ല ഞാൻ കൂടുതൽ കേൾക്കുന്നത് സിനിമ പാട്ടുകളാണ് ഒരുപാട് സങ്കടകരമായ പാട്ടുണ്ട് ലൗ സോങ്സ് ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള പാട്ടുകൾ എനിക്ക് ഒരുപാട് തൊണ്ണൂറ് കാലഘട്ടങ്ങൾ മാത്രമല്ല അതിലും പഴയ കാലഘട്ടത്തിലുള്ള പാട്ടുകളും ഒരുപാട് നല്ല പാട്ടുകളുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ് എങ്കിൽ കൂടി ഞാൻ കൂടുതലും ഞാൻ ജനിച്ച ആ കാലഘട്ടത്തിലെ പാട്ടുകളാണ് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളതും ഞാൻ പാടാറുള്ളതും തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ ആ കാലഘട്ടത്തിലെ പാട്ടുകളൊക്കെ ഒരുപാട് പാട്ടുകൾ എനിക്ക് നന്നായിട്ടറിയാം വരികൾ തെറ്റാതെ ഞാൻ പാടുകയും ചെയ്യാറുണ്ട്